ഇന്ന് ഉച്ചഭക്ഷണത്തിനായിട്ടാണ് ഞാൻ ഈ ഓഡർ നൽകിയത് കേട്ടോ എനിക്കിതുവരെ ആ സാധനം ലഭിച്ചില്ല അപ്പം എന്തുകൊണ്ടാണത് കിട്ടാതെ വന്നത് വൈകിയാണ് കുറച്ച് സമയം അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ടു മൂന്ന് പേർക്കുള്ള ഫുഡാണ് ഞങ്ങൾ ഓഡർ ചെയ്തത് പക്ഷെ അത് കിട്ടാനായിട്ട് സമയത്ത് ഞങ്ങൾക്കത് ലഭിച്ചതുമില്ല ഞങ്ങൾക്കത് വേറെ വാങ്ങിക്കേണ്ടിയും വന്നു എന്തുകൊണ്ടാണത് നിങ്ങൾ വൈകിയത് അതു കാരണം എനിക്കത് സ്വീകരിക്കാൻ നിർവ്വാഹമില്ലല്ലോ അപ്പം ഇനിയുള്ള ഓഡർ ചെയ്യുമ്പോഴെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ സാധനം എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇത് സ്വീകരിക്കുന്നില്ല ഞങ്ങൾ തിരിച്ചയ്ക്കുകയാണ് ഓക്കെ